സഞ്ചാരി ടൂർ എന്നു പറഞ്ഞതു കൊണ്ട് സേവനദാതാവുണ്ട് അവർക്ക് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് കന്നട ഉറുദു മറാട്ടി എന്നുള്ള ഭാഷകളൊക്കെ കൂടുതൽ സംസാരിക്കാൻ കഴിയും നല്ലതൊരു ഏജൻസിയാണ് അവർ അവർ നല്ല കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ ടൂറിന് ചെല്ലുന്ന ചെല്ലുമ്പം തൊട്ട് ഉടനെ അവരുടെ ചെന്നു ചേരുമ്പം തൊട്ടു പോരുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരെ നല്ല ഭംഗിയായും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നുണ്ട് ആ അവരുടെ ഫുഡ്ഡും കാര്യങ്ങളൊക്കെ വളരെ നല്ല മികച്ചതാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം വളരെ നല്ല രീതിയിൽ തന്നെ ഉള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതവർ റെഡിയാക്കി തരും അതുപോലെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം വിഭവസമൃദ്ധമായ ഒരു ഊണ് തന്നെയാണ് പിന്നെ മീൻ പൊരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് വൈകുന്നേരം നാലുമണിക്ക് കാപ്പി അല്ലെങ്കിൽ ചായ അതോടൊപ്പം എന്തെങ്കിലും ചെറുകടി ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം രാത്രിയിലെ ഭക്ഷണവും വളരെ നല്ല രീതിയിൽ തന്നെ അവർ അതിനു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്